ആ അതെ അതെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ മൂന്നാറിലേക്കാണോ ഇത് എന്ന് എന്നാണ് നിങ്ങളുടെ ഡേറ്റ് എന്നാണ് ഫിക്സ് ആക്കീനോ ആ നാലാം തീയതി യെ മൂന്ന് ഉം നമുക്ക് ഉം നിങ്ങൾ എങ്ങനെ അത്യാവശ്യം ആൾക്കാർ ഉണ്ടോ എത്ര ആൾക്കാർ ഉണ്ടാവും പത്ത് ആൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാവലറിൽ ബുക്ക് ചെയ്യുകയായിരിക്കും നല്ല് അതാവുമ്പോൾ ഒരു പത്ത് ആൾക്കും ഫുഡ് ഒരു പെർ ഹെഡ് ഒരു ടു രണ്ടായിരം മൂവായിരം ആ ഒരു ആ റേഞ്ചിൽ നമുക്ക് എങ്ങനെ ഫുഡ് ഫുഡ് നിങ്ങൾ ആണോ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പം നല്ല ഹോട്ടലുകൾ ഞങ്ങൾക്ക് അറിയുന്നത് എല്ലാം ഞങ്ങളെ കെയർ ഓഫിൽ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു ആ നമുക്കൊരു മൂവായിരം പിന്നെ എന്തെങ്കിലും പോയി വന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇത് എത്ര എത്ര എത്ര ദിവസത്തേക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതൊരു ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് കൂടും കേട്ടോ ആ അതെ അതെ ഒരു സെവൻ ഏഴായിരം ഒക്കെ ആവും ഒരു പെർ ഹെഡ് ഒരാൾക്ക് ഇത് ഇത് ഏഴായിരം അതെ അതെ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ ഉണ്ട് ആറ്റുകാൽ ആറ്റുകാൽ വാട്ടർഫോൾസ് ഉണ്ട് പോതമേട് വ്യൂ പോയിൻറ് ഉണ്ട് പിന്നെ ടാറ്റാ ടീ മ്യൂസിയം ഉണ്ട് ഇപ്പോൾ ആ ടൂറിസ്റ്റ് സ്റ്റേഷൻ ഞങ്ങൾ ഇരവികുളം ഒക്കെ പോവാം നമുക്ക് അതിൽ നിങ്ങൾ ഉം പേടിക്കുക ഒന്നും വേണ്ട അതൊക്കെ ഫുൾ സെറ്റ് ആണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവലുണ്ട് മൂന്നാർ അല്ലേ ആ ഏഴ് നിങ്ങൾ ഏഴ് ദിവസം എന്നല്ലേ പറഞ്ഞത് ഏഴ് ദിവസത്തിൽ ആ ആറ് ഇപ്പോൾ മോർണിംഗും ഉണ്ടാവും ഏഴ് നൈറ്റും ഉണ്ടാവും ഉം പോകാൻ വലിയ ഇത് മലപ്പുറത്തുനിന്ന് വലിയ ദൂ ഇത് ലോങ്ങ് ഇല്ലല്ലോ പിന്നെ നിങ്ങൾ നാളെ ഒന്ന് ഓഫീസ് വരുമോ നാളെ ഒന്ന് ഓഫീസ് വരുകയാണെങ്കിൽ നമുക്ക് കണ്ട് സംസാരിക്കാം